ആ അതെ ഇത് പട്ടത്തുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം അല്ലേ ആ ഞാൻ ഇവിടെ പട്ടം അടുത്ത് പ്ലാമൂടിൽ നിന്നാണ് വിളിക്കുന്നത് ആ ഓക്കേ ഞാൻ വിളിച്ചത് ഞാൻ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റി അറിയാൻ വിളിച്ചതാണ് ഇപ്പോൾ ഇപ്പോൾ അവിടെ ഏതൊക്കെ ആണ് അവൈലബിളായിട്ട് ഉള്ളത് ആ ആ ഓക്കേ ഓക്കേ ആ മൈലേജ് ഏറ്റവും കൂടിയത് ആണ് ഏതാണ് അത് നോക്കി എടുക്കാം എന്നാണ് കരുതുന്നത് ആ ആ ഓക്കേ പ്രൈസ് എല്ലം എങ്ങനെ ആണ് വരുന്നത് വ്യത്യസ്തം ആണോ അതെ ഓ ഓ ടാക്സ് കൂടെ ചേർത്തിട്ടാണ് ആ രണ്ടര ലക്ഷം വരുന്നത് അല്ലേ ആ ആ ഓക്കേ ഓക്കേ എ ഏതിനാണ് വരുന്നത് ആ ക്ലാസിക്കിന് ഓക്കേ ഓക്കേ അല്ല അല്ല ഞാൻ സീ സി യിട്ട് എടുക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ആ രണ്ട് വർഷത്തേക്ക് വേണ്ടി ആണ് നോക്കുന്നത് ആ ആ അതെ ആ ആ ഉണ്ട് ഉണ്ട് ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ജനുവരി ഫസ്റ്റ് വീക്ക് നോക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓഫർ ഒന്നും കാണില്ലേ ആ ആ ഓക്കേ ഓക്കേ ആ ആ ഞാൻ അടുത്ത ആഴ്ച സൺഡേ ഓപ്പൺ ആയിരിക്കുമോ ആ ആ ഓക്കേ അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച് സൺഡേ വരാം

ആ ആ എനിക്ക് വേറെ ഒരു സംശയം ഉണ്ടേ ഇപ്പോൾ വണ്ടി ഞാൻ എടുക്കാണെങ്കിൽ എടുത്തിട്ട് എത്ര ദിവസം കഴിഞ്ഞായിരിക്കും എൻ്റെ പേരിലേക്ക് ഈ ബുക്കും പേപ്പറും ഒക്കെ മാറി കിട്ടുന്നത് ആ ആ ആ ഓക്കേ ഓക്കേ ഇപ്പോൾ ഏതൊക്കെ കളേഴ്സ് ആണ് ഇപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഒരുപാടും പോവുന്നത് ബ്ലാക്ക് ആണല്ലേ ആ ആ ഓക്കേ ഓക്കേ

ഇല്ല ഇല്ല മറ്റ് ഒന്നും ഇല്ല അപ്പോൾ ഞാൻ വരുന്നതിന് മുന്നെ ഞാൻ കോൺടാക്ട് ചെയ്തേക്കാം ആ ഓക്കേ താങ്ക്യൂ